എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപെട്ട പാട്ടുകാരൻ സിഡ് റാമാണ് പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ടാണ് അയാൾ അദ്ദേഹം മലയാളത്തിലും തമിഴിലും കന്നടയിലും ഒരേപോലെ പാടും നല്ല ഫീൽ ആണ് പാട്ട് കേൾക്കാൻ പിന്നെ അദ്ദേഹം സംഗീത സംവിധായകനാണ് എല്ലാം ഉണ്ട് അയാളുടെ പാട്ട് ചില സമയത്ത് നമുക്ക് ഓരോ വൈബ് അനുസരിച്ച് മൂഡ് അനുസരിച്ച് മാറാൻ പറ്റും ലൈക്ക് സന്തോഷം ആണെങ്കിൽ സന്തോഷം സങ്കടം ആണെങ്കിൽ സങ്കടം റൊമാൻസ് ആണെങ്കിൽ റൊമാൻസ് എല്ലാത്തിനും ഒരു ഓളം ഉള്ളൊരു പാട്ടാണ് എല്ലാം അയാൾ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് എനിക്കിഷ്ടം പിന്നെ വേറെയും ഉണ്ട് കുറേ ആൾക്കാർ എന്നാലും അദ്ദേഹമാണ് എനിക്കിപ്പോൾ മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഞാൻ എപ്പോൾ പാട്ട് കേട്ടാലും അദ്ദേഹത്തിൻ്റെ പാട്ടേ കൂടുതലും കേൾക്കാറുള്ളൂ ഓരോരോ ലൗ സോങ്ങ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിലോട്ട് അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത് സോ നല്ലൊരു പാട്ടാണത് സിഡ് റാം